ഇപ്പോൾ എനിക്ക് എന്താണ് പറയുക എൻ്റെ ഏറ്റവും വലിയ ശക്തിയും കാര്യങ്ങളും എന്നൊക്കെ പറയുകയാണേൽ എൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ട് അവള് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി കാരണം എനിക്കിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവള് എനിക്ക് എന്താ പറയുക ഭയങ്കര സപ്പോർട്ടാണ് സോ അപ്പോൾ അവള് തന്നെയാണ് അവളാ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെയാണ് ഞാനിപ്പോൾ എന്താ പറയുക ഒരു മുന്നോട്ടിങ്ങനെ പോയ്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവള് തന്നെയാണ് എൻ്റെ ഒരു ശക്തി എന്നൊക്കെ പറയാനുള്ള കാരണം കാരണം ഇപ്പോൾ എനിക്കെന്തൊക്കെ പ്രശ്നങ്ങള് വന്ന് കഴിഞ്ഞാലും ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു പാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊന്നും അവൾ എന്താ പറയുക അവള് എന്നെ കുറ്റപ്പെടുത്താതെ എന്നെ എന്താ പറയുക എന്നോട് നല്ലത് പറഞ്ഞു തന്ന് മുന്നോട്ട് കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തില് ഒരു ശക്തിയായിട്ട് ഞാൻ കരുതുന്നത് അവളെത്തന്നെയാണ് എന്നാൽ എനിക്ക് ബലഹീനതയായിട്ട് പറയാനുള്ളത് അവളെ പറ്റി തന്നെയാണ് കാരണം അവൾക്കിപ്പോൾ എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ചെയ്യണ്ടതെന്നോ എന്താ പറയുക അവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എനിക്ക് കഴിയുന്നുണ്ട് കാരണം അവൾക്കെന്തെങ്കിലും ഇതായി പോയി എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കടം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അത് എൻ്റെ ഒരു വലിയ ബലഹീനത ആയിട്ടാണ് എന്താ എനിക്ക് തോന്നുന്നത് കാരണം നമ്മള് ആ സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ട സമയത്ത് നമുക്കതിന് കഴിയാതെ നമ്മളെന്തോ എന്താ പറയുക അവരുടതില് വിഷമത്തില് ഇതായി പോവുകയാണ് അപ്പോൾ അതൊരു ബലഹീനതയാണ് അവരെ സപ്പോർട്ട് ചെയ്യാനൊന്നും നമ്മളെക്കൊണ്ട് കഴിയുന്നില്ല അതെൻ്റെയൊരു ബലഹീനതയായിട്ടാണ് ഞാൻ കരുതുന്നത്